വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കാർഷിക മേഖല ഒന്നും കൂടി ഉണർവോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കാർഷിക വ്യവസായ സംരംഭകർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക സർക്കാർ ഒന്നും കൂടി ഇടപെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുംകൂടി മെച്ചപ്പെടും പോരാത്തതിന് അതിനു വേണ്ട ട്രാക്ടറ് മോണോ ക്രോപ്പിങ്ങിനു വേണ്ട ഉപകരണങ്ങളൊക്കെ സംവരണ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണെങ്കിൽ സംവരണം അല്ല അതിന്റെ ഡിസ്കൗണ്ട് രൂപത്തിൽ കർഷകർക്ക് കൊടുക്കുകാണെങ്കിലും അവർക്ക് ഒന്നും കൂടി മെച്ചപ്പെടുത്തി അതുപയോഗിക്കാൻ കഴിയും